കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ ഉയർന്നു വരുന്ന ചില പുതിയ ജോലികളും റോളുകളും എന്തൊക്കെയാണ് ഉദാഹരണം യൂട്യൂബർ കണ്ടൻ ക്രിയേറ്റർ സുചാരി എന്നുതുടങ്ങിയ ഇന്ത്യയിലെ ചെറുപ്പക്കാർ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉയർന്നുവന്ന ചില പുതിയ ജോലികളും റോളുകളും ഓക്കെ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് കുറെയുണ്ട് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പല ഉള്ള ജോലികളും കണ്ടെത്തുകയാണ് ഇപ്പം കാരണം ഇപ്പം തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കണ്ടൻ ക്രിയേറ്റേഴ്സ്സ് യൂട്യൂബേഴ്സ് ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ജോലിയില്ലാതെ ഈ ജോലി ചെയ്യും എന്നു നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇതൊക്കെ ഭയങ്കര പാടുപെട്ടൊരു ജോലിയാണ് കണ്ടൻ്റ് ഉണ്ടാക്കണം യൂട്യൂബേഴ്സൊക്കെ സത്യം പറഞ്ഞാൽ അവരുടെ രാത്രിയും പകലുമില്ല അധ്വാനിച്ച് അധ്വാനിച്ച് കുറേ വർഷങ്ങൾക്കുശേഷം ഇത്രയേ ഫോളോവേഴ്സും വ്യൂവേഴ്സും ലൈക്സൊക്കെ നേടിയാണ് കുറേ കാര്യങ്ങൾ അവരുടെ കുറേ പേഴ്സണൽ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടും നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് പല യുട്യൂബേഴ്സും നമുക്കുവേണ്ടി ചെയ്യുന്നത് അതുപോലെതന്നെ പൊതുവെ കുറേ റോളുകൾ ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യ പൊതുവെ കുറേ റോളുകും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഒരു ആവശ്യമില്ലാത്ത കുറേ റോളുകൾ വന്നിട്ടുണ്ട് കുറേ നല്ല റോളുകൾ വന്നിട്ടുണ്ട് കാരണം ഇത് മൊത്തത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമ്മൾ പറയുകയാണെങ്കിൽ ജോലികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജോലികൾ പല രീതികൾ ജോലി ഉണ്ട് നമ്മൾക്കിപ്പം വീട്ടിൽ ഇരുന്നുതന്നെ ജോലികൾ ചെയ്യാം അല്ലെങ്കിൽ ഫോണിൽക്കൂടി ആണെങ്കിൽ ജോലിചെയ്യാം വർക്ക് അറ്റ് ഹോമുണ്ട് എല്ലാ ഫീൽഡുകളും എടുക്കാം അപ്പം ഇപ്പം നമുക്ക് പണ്ടത്തെ ഒരു കാലഘട്ടത്തിലേക്കും ജോലികൾ ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര കൂടുതലാണ് നമുക്കിപ്പം വീട്ടിൽ ഇരുന്ന് തന്നെയാണെങ്കിൽ ജോലികൾ ചെയ്യാം നമുക്ക് സമ്പാദിക്കാം പല രീതിയിൽ പല വേദികളും നമ്മൾ ഈ ഒരു ഈ ഒരു കാലഘട്ടം സമ്പാദിക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം അതിനെക്കുറിച്ച് നമ്മൾ കുറെ അന്വേഷിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം ഇപ്പം ആയിക്കോട്ടെ ഇപ്പോൾ ജോലികളായിക്കോട്ടെ ഇപ്പോൾ നമുക്ക് പല പല വേദികളുണ്ട് പല ആപ്പുകളുണ്ട് പല കാര്യങ്ങളുണ്ട് സമ്പാദിക്കാൻ വേണ്ടി ഈ ഒരു റോളുകൾ എന്നു വെച്ചു പറയുമ്പോൾ നമുക്കിപ്പോൾ തന്നെയാണ് ഈ ഇന്ത്യയിൽ പല കല പല റോളുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ കുറെ റൂളുണ്ട് ഇപ്പോൾ ഒരു ആവശ്യവുമില്ലാത്ത കുറച്ച് റൂളുകളുണ്ട് അതു പാലിക്കണം ഇങ്ങനെ പാലിക്കണം ചിലപ്പോൾ അതൊരാവശ്യമില്ലാത്ത റൂളുകൾ ആയിരിക്കാം അന്ന് അതിനേക്കാൽ വലുതാണ് നമ്മൾക്കറിയുന്ന നമ്മൾ ഇപ്പം കുറേ നല്ല റൂളുകൾ വന്നിട്ടുണ്ട് നമ്മുടെ സുരക്ഷിതത്വത്തിനുവേണ്ടി നമ്മുടെ ഗവൺമെൻ്റെ് ഇറക്കിയ കുറച്ചു നല്ല റൂളുകളുണ്ട് എം വിഡിക്കാർ എന്നപോലെ അതിലിറക്കി കുറേ നല്ല റൂളുകളുണ്ട് ആ റൂൾ പാലിക്കണം കാരണം അവർ നമ്മുടെ സുരക്ഷിതത്വത്തിനുവേണ്ടിയാണ് അവർ അങ്ങനെ പറയുന്നത് കാരണം ഇപ്പം ജോലികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പല ജോലികൾ പല വേദികളുമുണ്ട് നമ്മുടെ കഴിവുകൾ തെളിയിക്കാനും നമ്മൾക്ക് സമ്പാദിക്കാനും കൂടുതൽ സമ്പാദിക്കാനും എല്ലാം പല ജോലികളുണ്ട് ചിലപ്പം വീട്ടിൽ ചെയ്യാവുന്ന ജോലികളായിരിക്കാം അങ്ങനെ പല വേദികളുണ്ട് ആ ഒരു ആ ഒരു ആ ഒരു ലോകത്താണ് നമ്മളിപ്പം ജീവിക്കുന്നത് ഒരു സാമ്പത്തികമോ അല്ലെങ്കിൽ നമുക്കും എന്തിനും ഒരു ഒരു കുറവില്ല ജോലികൾക്ക് ജോലികളുണ്ട് എല്ലാം ഉണ്ട് ഒന്നിനും ഒരു കുറവും നോക്കിയിട്ട് ഈ ഒരു കാലഘട്ടത്ത് നമുക്ക് ഒന്നിനും ഒരു കുറവ് കാണുന്നില്ല സമ്പാദിക്കാനായിട്ട് പല വേദികളുണ്ട് നമുക്ക് സമ്പാദിക്കാൻ പല രീതികളിൽ നമുക്ക് സമ്പാദിക്കാം പല ജോലികളുണ്ട് പല ഇഷ്ടപ്പെട്ട വേദികൾ നമുക്ക് ജോലികളുണ്ട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് ജോലിയാണ് നമുക്ക് തിരഞ്ഞെടുത്ത് നമുക്ക് ഇഷ്ടപ്രകാരം നമുക്കുവേണ്ടി പോകാം അങ്ങനെ കുറേ സാഹചര്യങ്ങൾ ഉണ്ട് നമ്മുടെ ഈ ലോകത്ത്